ഹലോ ആ അതെ ആ ആ പറ ഞാൻ

ഓ ഓ വീട് വലുതാക്കാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ വലുതായി വരെയല്ലേ അവർക്ക് ഓരോ മുറി വീതം ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് എക്സ്ടെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനു വേണ്ടിട്ട് പഞ്ചായത്തിൽ പോയിരുന്നു അതാണ് അങ്ങനത്തത് ആ

ഓക്കെ ഓക്കെ ഞാൻ വന്നിട്ട്

ബാങ്കിലാണ് ബാങ്കിലാണ് റിന്യൂവൽ കൊടുത്തത് വീട് വീട് കാട്ടാക്കട കാട്ടാക്കട തൂങ്ങാംപാറ ആഹ് തൂങ്ങാംപാറയിലാണ് എനിക്ക് ഓ എനിക്ക് മൂന്ന് മക്കളുണ്ട് എമൗണ്ട് ഏകദേശം ഇരുപതിനായിരം അടുപ്പിച്ചു വരുവായിരിക്കും

ആഹ് ഒരു ഓ ഒയിരെ ഒരു നിലകൂടി വയ്ക്കാന്ന് വിചാരിച്ചു അപ്പം കൂടുതൽ പൈസ ആവുവായിരിക്കും കൊടുത്തിട്ട് ഏകദേശം ആറുമാസത്തിൽ കൂടുതൽ ആവുവായിരിക്കും ആഹ് ആവും ആ ആ ഇപ്പോഴാണ് സാംഗ്ഷനായത്

ജോ ഓ ജോലിയവൻ ബിസിനസാണ് ചെയ്യുന്നത് ആഹ് മോൾ ഇളയ രണ്ടാമത്തവൾ അഡ്വക്കേറ്റ് ആയിരുന്നു ഇപ്പം അവൾ എം എസ് ഡബ്ലിയു പഠിക്കണു മൂന്നാമത്തവൾ അഗ്രികൾച്ചറിന് പഠിക്കണു

ഓ ശരി ശരി അന്നേ എപ്പഴാന്തൊ ഇത് പണി പണി എപ്പഴ് തുടങ്ങണമെന്ന് ഉടനെ തുടങ്ങി തുടങ്ങാനാണ് പ്ലാൻ ഇട്ടേക്കണത് മൂത്ത മോൻ കല്യാണം കഴിഞ്ഞല്ലോ അപ്പം ഞങ്ങൾക്ക് മുറിയൊക്കെ വ ആഹ് മുറിയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് മുകളിൽ അവർക്ക് മൂന്നുപേർക്കും മൂന്ന് മുറിയെടുക്കാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്യണത് ആ അത് മതി മൂന്ന് ബെഡ് റൂം അറ്റാച്ചിടായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത് അങ്ങനെ ആഹ് ഓ താങ്ക് യൂ താങ്ക് യൂ ഓ നന്ദി ഓക്കെ